നമ്മൾ കുടുംബം എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാറുണ്ട് കൃഷിയിലേക്ക് അപ്പം പിന്നെ കുഴപ്പമില്ല അവർ കുറച്ച് നേരം അ ദിവസം മുഴുവൻ അല്ല ഒരു നേ കുറച്ചുനേരം കുടുംബത്തിലെ എല്ലാവരും കൂടി പങ്കു ചെല്ലുമ്പം അത് കുറച്ച് കൂടി നല്ലതായിരിക്കും നമ്മുക്ക് മനസ്സിന് സന്തോഷം ഉള്ളതായിരിക്കും ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടാകും എല്ലാവരും കൂടി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ പറമ്പിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ ഇവിടെ നിന്നു തന്നെയാണ് ഉണ്ടാക്കുന്നത് അതു ചേനയും ചേമ്പും കാച്ചിലും അതേപോലെ തന്നെ തക്കാളി പച്ചമുളക് വഴുതനങ്ങ പിന്നെ കത്രിക്ക പിന്നെ പയറ് ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് അത്യാവശ്യം വാഴക്കുലകളും ഉണ്ട് പിന്നെ പൂള ഒക്കെ നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പം നമ്മൾ അതുപോലെ നമുക്ക് പുറത്തോട്ട് പോകണ്ട എല്ലാവരും കൂടി ചേർന്ന് ഇത്തിരി നേരം അതിൻ്റെ കാടും പറിച്ച് തടമൊക്കെ എടുത്തു കുറച്ച് വളവും വെള്ളവും ഒക്കെ ഒഴിക്കുമ്പം എല്ലാവരും കൂടി കൂടുമ്പം ആ പണി നമുക്ക് സുഗമമായിരിക്കും എഹ് അത് എന്താ പറയുക നമ്മളാ കൃഷീൻ്റെ പ്രാധാന്യം എല്ലാരിലും എത്തും ചെറിയ കുഞ്ഞുങ്ങൾ ഇതു കണ്ടു പഠിക്കുന്നവരുണ്ട് മുതിർന്നവരിൽ നിന്നാണ് താഴെയുള്ളവർ പറഞ്ഞ് മനസ്സിലാകുന്നത് ഇങ്ങനെ ചെയ്യണം എന്ന് വരും തലമുറക്ക് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠവും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ